ആ അതേ ഞാൻ ഫോൺ പേയും ജിപേയും ഒക്കെ ഉപയോഗിക്കാറുണ്ട് എനിക്ക് ഇതുവരെ വലിയ പ്രശ്നമായിട്ട് അത് തോന്നിയിട്ടില്ല കാരണം നമുക്ക് അത്യാവശ്യം ഉപകാരമുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ജിപേയും ഫോൺ പേയുമൊക്കെ പക്ഷേ എനിക്ക് ഒരുതവണ ഒരു ഇത് പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഒരാൾക്ക് ഫണ്ട് ട്രാൻഫർ ചെയ്യുന്ന സമയത്ത് മൊബൈൽ നമ്പറ് മാറ്റം വന്ന സമയത്തേക്ക് അത് വേറൊരാളുടെ ഇതിലേക്ക് പോയി അപ്പോൾ എനിക്കാ പൈസ ഇതാ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാനത് ബാങ്കിൻ്റെ അക്കൌ ഇതിലേക്ക് മെയിലും കാര്യങ്ങളൊക്കെ ജിപേൻ്റെ ഇതെല്ലാം വെച്ചിട്ട് ചെയ്തിട്ടാണ് എനിക്ക് അത് ശെരിയാക്കി കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ഉപയോഗിക്കുന്നതിനെക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളത് കഴിവതും ശ്രദ്ധിച്ച് ഉപയോഗിക്കുക അതായത് നമ്മുടെ അക്കൌണ്ട് നമ്പർ ആയിക്കോട്ടെ ഫോൺ നമ്പറും യു പി ഐ നമ്പർ ഒക്കെ നമ്മള് കെയർഫുൾ ആയി ആർക്കും മറ്റൊരാൾക്ക് പറഞ്ഞുകൊടുക്കാത്ത രീതിയില് സൂക്ഷിച്ച് വയ്ക്കുക അതുപോലെ തന്നെ കഴിവതും നമ്മള് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക നമ്മുടെ അക്കൌണ്ട് ട്രാൻഫർ ഒക്കെ അതല്ലാതെ എനിക്ക് ജിപേ ഫോൺപേ ഉപകാരപ്രദം തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട് എങ്കിലും കെയർഫുൾ ആയി ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ സംഭവിക്കും